ഇരുപത്തിഒന്ന് രണ്ട് രണ്ടായിരത്തി ആറ് അഞ്ച് ഒന്നേ ആയിരത്തി തൊള്ളയിരത്തി തൊണ്ണൂറ്റോമ്പത് ഇരുപത്തി ആറ് ഒമ്പതെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുപ്പത് അഞ്ച് രണ്ടായിരത്തി പത്ത് ഇരുപത് എട്ട് രണ്ടായിരത്തി ഏഴ്